ഞാന് കഴിഞ്ഞ ദിവസം ഒരു ബോഡി വാഷ് ഓണ്ലൈനിന്ന് വാങ്ങാന് റെഡിയായി നമ്മള് ആദ്യം ആദ്യമൊക്കെ പേടിച്ചാണ് നമ്മൾ ബോഡി വാഷ് നമ്മൾ ഓര്ഡര് ചെയ്തത് കാരണം പല തട്ടിപ്പുകള് നമ്മൾ കേട്ടിട്ട് പകൽ ഇതാച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ബോഡി വാഷ് ഓര്ഡര് ചെയ്തു ഓണ്ലൈനിൽ അപ്പോൾ വന്നപ്പോൾ എനിക്കത് ഒന്നും തോന്നിയൊന്നും ഇല്ല അത് പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ നല്ല പാക്കിംഗ് ആയിരുന്നു അതായത് ഓണ്ലൈന് അവൾ ആ ബോഡി വാഷ് നീക്കി അഴിച്ചപ്പോൾ നല്ല പാക്കിംഗ് നല്ല പാക്കിംഗ് ആയിരുന്നു നമ്മൾ ആ പാക്കിംഗ് എല്ലാം പൊട്ടിച്ചു എന്നച്ചാൽ എന്റെ ബോഡിയിൽ ശരീരത്ത് കുരുക്കള് വള വളരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഓർത്താണ് ബോഡി വാഷ് ഞാന് ഓൺലൈൻന്ന് ഓര്ഡര് ചെയ്തത് ഓണ്ലൈനില് ബോഡി വാഷ് ഓര്ഡര് ചെയ്തു ഓര്ഡര് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാന് പൊട്ടിച്ചു നല്ല സ്മെല് ഉണ്ട് പൊട്ടിച്ചപ്പോൾ നമുക്കതിൻ്റെ സ്മെല് കിട്ടി ആ ബോട്ടില് നിറച്ചും എന്റെ ബോഡി വാഷ് ഉണ്ടായിരുന്നു കീം ഉണ്ടായിരുന്നു ഞാന് ഇതുവരെയായിട്ടും ഞാന് ഒരു സാവകാശം എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷേ ഈ ബോഡി വാഷ് കീം ഞാന് ഓര്ഡര് ചെയ്തപ്പോൾ എനിക്ക് വന്നപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല അമൌണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാന് പൊട്ടിച്ചു നല്ല സ്മെല്ലും എനിക്ക് തോന്നുന്നു സോപ്പിനെക്കാളും ഏറ്റവും കൂടുതല് നല്ലത് ബോഡി വാഷ് ആയിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഞാന് രണ്ട് മൂന്ന് ദിവസമായിപ്പോൾ യൂസ് ചെയ്യാന് തുടങ്ങിയിട്ട് ഇത് നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബോഡി വാഷ് തേച്ചെപ്പിന്നെ നമ്മൾ പല തട്ടിപ്പും ഓണ്ലൈന് തട്ടിപ്പും ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അതും പേടിച്ചാണ് ഞാന് ഓണ്ലൈന്ൽ ഇത് ഓര്ഡര് ചെയ്തത് പക്ഷേ വന്ന സാധനം നമുക്ക് നല്ല രീതിയില് അത് പയോജനപ്പെടുത്താന് പറ്റി നല്ല നല്ല ബോട്ടില് ആയിരുന്നു ഇത് ബോട്ടില് എടുത്ത് പറയേണ്ടത് തന്നെയാണ് നല്ല ഒരു ബോട്ടിലായിരുന്നു എനിക്കത് ഒര് ടു മന്ത് ഒരു ര രണ്ടു മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാന് പറ്റുന്ന അത്രോം നമുക്ക് ഉണ്ടായിരുന്നു ആ ഒരു ബോട്ടിലിൽ എനിക്ക് സോപ്പിനെക്കാളും നല്ല യൂ യൂ ഇതാണ് എനിക്ക് തോന്നുന്നു എന്ന് വെച്ചഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി യൂസ് ചെയ്യാന് തുടങ്ങിയിട്ട് എന്റെ ബോ എന്റെ ശരീരത്ത് കുരുക്കള് ഉണ്ടാവാം അപ്പം അത് ചെറുതായിട്ടിപ്പോൾ പോവാന് തുടങ്ങി ഇത് യൂസ് ചെയ്തേ പിന്നെ ഉപയോഗിച്ചു തുടങ്ങിയേപ്പിന്നെ എനിക്ക് നല്ല രീതിയില് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങി എനിക്ക് നല്ല രീതിയില് മാറ്റം ഇത് ചെയ്തു ഇപ്പോൾ ആദ്യമേ കൂടുതലാണ് നല്ല സ്മെല്ലും ഒത്തിരി നേരം നീണ്ടു നില്ക്കുന്നു സ് മണം ഒത്തിരി നേരം നീണ്ടു നില്ക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു